ഇന്ത്യയിലെ പ്രശസ്ത ശൈലികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നൃത്ത ശൈലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോക്ക് ഡാൻസർ അങ്ങനത്തെ പല രീതിയിലുള്ള നൃത്ത ശൈലികളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ പല തരത്തിലും പല നാട്ടിലും പല രീതിയിലാണ് നൃത്തങ്ങൾ കളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായ ഇഷ്ടംപോലെ നർത്തകർ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രഭുദേവ് പ്രഭുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസർ മാത്രമല്ല ഒരു നടനും കൂടിയാണ് അപ്പോൾ പ്രഭുദേവിൻ്റെ ഒകെ ഡാൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിന്നെ ഹൃതിക് റോഷൻ അങ്ങനത്തെ പല രീതിയിൽ ഇപ്പോൾ പത്മാ സുബ്രഹ്മണ്യം അങ്ങനത്തെ പല ആൾകാർ ഉണ്ട് പത്മാ സുബ്രഹ്മണ്യം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ മെയിൻ ആളാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നൃത്തകരാണ് ഇപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വയസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും നമ്മുടെ ആദ്യം തൊട്ടേ ഉള്ള നർത്തകർ ഇവരൊക്കെയാണ് ഹൃതിക് റോഷൻ അതായത് പല ആൾകാർ ഉണ്ട് പല രീതിയിലും പല ആൾക്കാരാണ് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് അപ്പോൾ അവരുടെ ഒക്കെ ശൈലികളൊക്കെ വേറെ വേറെയായിരിക്കും അവരൊക്കെ നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ള ഡാ ഡാൻസർ അങ്ങനത്തെ ആൾക്കാർ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം